ഇന്ത്യൻ സിനിമകളെ കുറിച്ച് എനിക്ക് വളരെ നല്ല അഭിപ്രായാണ് ഞാൻ തമാശ കൂടുതലുള്ള സിനിമകളാണ് കാണാറ് സിനിമയേക്ക സിനിമയേക്കാളും എനിക്കിഷ്ടം സീരിയലുകളാണ് ഞാൻ മുടങ്ങാതെ എല്ലാ സീരിയലുകളും കാണാറുണ്ട് രാത്രിയും കാണും പകലും കാണും ചാനൽ മാറി മാറി കണ്ടുകൊണ്ടിരിക്കും എനിക്കത്രയ്ക്ക് ഇഷ്ടമാണ് സീരിയൽ സിനിമയിൽ എനിക്കേറ്റവും ഇഷ്ടമുള്ള നടൻ മമ്മൂട്ടിയാണ് മമ്മൂട്ടിയുടെ ഏത് സിനിമ കണ്ടാലും എനിക്കെത്ര കണ്ടാലും മതിയാവാറില്ല അതുകൊണ്ട് മമ്മൂട്ടിയുടെ എല്ലാ ചിത്രങ്ങളും ഞാൻ കാണാറുണ്ട് അതുപോലെ ഇഷ്ടപ്പെട്ട സിനിമാനടി ശോഭനയാണ് ശോഭനയുടെ സിനിമകളും എനിക്ക് വളരെ ഇഷ്ടമാണ് സിനിമ ശോഭനയുടെ പാ ഡാൻസും പാട്ടും സിനിമയും എല്ലാം എനിക്കിഷ്ടമാണ് പഴയ സിനിമാഗാനങ്ങളാണ് എനിക്കേറ്റവും കൂടുതൽ ഇഷ്ടം അത് എനിക്ക് യേശുദാസിൻ്റെ ഗാനങ്ങളാണ് എനിക്കേറ്റവും ഇഷ്ടം അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ എന്നും എപ്പോഴും കേട്ടിരിക്കാൻ തോന്നും എനിക്ക് വിഷമങ്ങളുണ്ടെ എന്തുണ്ടെങ്കിലും ഞാൻ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ കേട്ടു കൊണ്ടേയിരിക്കും അത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിന് നല്ല ഒരു ആശ്വാസം തോന്നും എന്നാലും ഞാൻ വീണ്ടും വീണ്ടും കേട്ടു കൊണ്ടേയിരിക്കും അതാണ് എൻ്റെ ഇഷ്ടം